വയനാട് ജില്ലയിൽ ഇപ്പോൾ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളത് ഏലം കുരുമുളക് ഇഞ്ചി മഞ്ഞൾ അങ്ങനത്തെ സാധനങ്ങളെക്കെയാണ് കാരണം സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടെന്നാണ് വയനാട് സാധാരണ അറിയപ്പെടുന്നത് പണ്ട് ബ്രിട്ടീഷികാർ വന്നപ്പോൾ തൊട്ടേ ഇവർ ഇതിന് വേണ്ടീട്ട് ഈ സു കുരുമുളക് ഏലം ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടീട്ടാണ് വയനാട്ടിലേക്ക് വന്നത് തന്നെ അപ്പോൾ ഞാൻ സധാരണയായിട്ട് കണ്ടു വരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വയനാട്ടിൽ സാധാരണ കൃഷി ചെയ്യുന്നത് പിന്നെ വാഴ നെല്ല് റബറ് അങ്ങനത്തെ കൃഷികളും വയനാട്ടിൽ സാധരണ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ കുരുമുളകൊക്കെയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് മുളപ്പിക്കുകയും ശേഷം അത് നട്ട് വെച്ചിട്ട് അതിൽ വളങ്ങളക്കെ കൊടുത്ത് അത് മരത്തിലേതിലേലും കയറ്റി വിട്ട് അതീന്ന് കുരുമുളക് ഉണ്ടാകുന്നത് പറിച്ച് ഉണക്കി പഴുത്ത് കഴിയുമ്പോൾ പറിച്ച് ഉണക്കി വിപണിയിലെത്തിക്കുകയാണ് ചെയ്യുന്നത് അതേ സ്ഥാനത്തിപ്പോൾ മഞ്ഞളും ഇഞ്ചിയും അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ മണ്ണിന് തടം എടുത്ത് അതിൽ കുഴികുത്തീട്ട് ഇഞ്ചി നട്ടിട്ട് അത് വലുതായി കഴിയുമ്പോൾ അത് പറിച്ച് വിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ വാഴ അങ്ങനത്തെ പഴങ്ങൾ പഴ വർഗങ്ങൾക്കൊക്കെ ഉള്ളതാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് വാഴയൊക്കെ വിത്ത് വെച്ചിട്ട് മണ്ണിൽ നട്ടതിന് ശേഷം അത് മുളച്ച് വരുമ്പോൾ അതിന് താങ്ങക്കെ കൊടുത്ത് അത് വളർന്ന് വന്ന് കൊല ആ വന്ന് കഴിയുമ്പോൾ കൊല പറിച്ച് വെട്ടിയെടുത്തിട്ട് അത് കൊണ്ടു കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെയൊക്കെയാണ് വയനാട്ടിൽ സാധാരണ കൃഷി രീതികൾ നമ്മൾ കണ്ടു വരുന്നത്